നമ്മുടെ ഇപ്പോഴത്തെ തലമുറ അല്ലേൽ ഇപ്പോഴത്തെ ജനറേഷനെന്ന് പറയുന്നത് കൂടുതലും ഒരു നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും അല്ലെങ്കിൽ യുവാക്കൾ ഇവരൊക്കെ കൂടുതലായിട്ടും മൊബൈലിന് അഡിക്റ്റായിട്ടുള്ള ആൾക്കാരാണിപ്പോഴും ഈ മൊബൈൽ ടി വി അതുപോലുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം നമ്മുടെ എന്താ പഴയ ആ ഒരു രീതി അതായത് പണ്ടൊക്കെ നമ്മുടെ ഈ മൊബൈലൊക്കെ അല്ലെങ്കിൽ ടിവിയൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന പല കാര്യമായിരുന്നു കളികൾ ഇഷ്ടം പോലെ കളികൾ ഫുട്ബോൾ അതുപോലെതന്നെ ക്രിക്കറ്റ് അതുപോലെ ഒരുപാട് ഒരുപാട് സ്പോർട്സ് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിലേക്കൊന്നും ആൾക്കാർ അധികം ഇപ്പം എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എല്ലാർക്കും ഇപ്പം ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള സകലമാന വിവരങ്ങളും അതിൽ കിട്ടുന്നുണ്ട് അപ്പം കുട്ടികൾ ആണേലും ഇപ്പം ചെറിയ പ്രായത്തിൽത്തന്നെ അതായത് മുട്ടിലിഴയുന്ന പ്രായത്തിൽ തന്നെ ഉള്ള കുട്ടികൾക്കു പോലും ഇപ്പം കൂടുതലായിട്ടും ഫോണിനെപ്പറ്റി അറിയാം മുതിർന്നവരെ കാട്ടിലും കൂടുതലറിയുന്നത് ഇപ്പോൾ കുട്ടികൾക്കാണ് അപ്പോൾ നമുക്ക് ഇവരെ ഇതിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് ഒരു പരിധി വരെ ഇവരെ നമുക്ക് തടയാൻ വേണ്ടി നമുക്ക് സ്കൂളുകളിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്ന സ്കൂളുകളിൽ ഇപ്പോൾ നമുക്ക് ഈ സ്പോർട്സിനായിട്ട് സ്പോർട്സ് ദിനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ സ്പോർട്സ് ഒക്കെ നമുക്ക് വെയ്ക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്പോർട്സ് കൂടുതലും അതിൽ ഒരു എന്താ നമ്മളിപ്പോൾ പോന്ന കുട്ടികൾ പോകുന്ന സ്കൂളിൽ ഒരു ദിവസത്തിൽ ഒരു വിഷയം എ സ്പോർട്സ് എങ്കിലുമായിട്ട് നമുക്ക് സ്പോർട്സിന് വേണ്ടിയെങ്കിലും കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട് നമ്മുടെ സർക്കാറിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു കുട്ടികളിൽ ഈ എന്താ പറയാ ഈ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സ്പോർട്സ് കൂടുതലും സ്കൂളുകളിൽ ആഡ് ചെയ്യാം പിന്നെ വീട്ടിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതലും ഈ ഫോൺ കൊടുക്കുന്നത് അനാവശ്യമായിട്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത് ഒഴിവാക്കി അവരുടെ കൈയ്യിൽ ഈ ഫുട്ബോൾ അതുപോലെതന്നെ അവർക്ക് ക്രിക്കറ്റ് ബാറ്റ് ബോൾ ഇതൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സ്പോർട്സിലേയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽത്തന്നെ ഇരുത്താതെ അവരെ ഗ്രൗണ്ടുകളിലേക്കും കളിക്കാനും ഒക്കെയായിട്ട് കൂടുതൽ അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് കൂടുതൽ കുട്ടികളിൽ നിന്ന് ഈ ടി വി ഫോൺ ഇതൊക്കെ അവരെ എന്താ ചെറിയ പ്രായത്തിൽത്തന്നെ അവരെ അതിൽ നിന്ന് അത് അഴുക്കാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി ഇതുപോലുള്ള കായിക പരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ട് അവർക്ക് കൂടുതൽ ടാലന്റുള്ള കു ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇന്ന് ഈ കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുമുണ്ട് അപ്പം അവർക്ക് കൂടുതൽ കളിക്കാനും അതുപോലെതന്നെ കൂടുതൽ സ്പോർട്സിലേയ്ക്ക് കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ പേരന്റ്സ് ചെയ്യേണ്ടത് അതിനുള്ള അവസരങ്ങൾ കൂടുതലാ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കൊണ്ട് വരാനായിട്ട് സർക്കാരും സ്കൂളുകളിൽ അതുപോലെതന്നെ പഞ്ചായത്ത് മേളകൾ ഇതുപോലെയുള്ള പരിപാടികൾ കൂടുതലായിട്ടും ഒപ്പിച്ച് എന്താ പറയുക സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കഴിവുകൾ കൂടുതലായിട്ടും നമുക്ക് പ്രചോദിപ്പിക്കാം അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെല്പ്ഫുള്ളായിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ്